ഞാൻ ദിവസവും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നു പറയണത് മെയിൻലി ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് അങ്ങനത്തെല്ലാ പ്ലാറ്റ്ഫോമുകളാണ് പിന്നെ ഇപ്പം ഒരു ലോകവിവരം തിരയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം അതിലൂടാണ് ഞാൻ മിക്കതും എന്ത് എന്ത് വിവരം ലോകത്ത് നടക്കണ എന്ത് വിവരവും അറിയണത് ഈ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പല പേജുകൾ ഫോളോ ചെയ്തിട്ടും പല അകൗണ്ടുകൾ ഫോളോ ചെയ്തിട്ടും പോ പല പോസ്റ്റിലൂടെയും നമുക്ക് ഈ സോഷ്യൽമീഡിയ വഴി അറിയാൻപറ്റും ഞാനത്ര ഫേസ്ബുക്ക് അത്ര ഞാന് ഉപയോഗിക്കുന്ന വ്യക്തിയല്ല ഇൻസ്റ്റയാണ് ഞാന് കൂടുതൽ ഉപയോഗിക്കുക